എന്റെ തൊട്ടടുത്ത ആശുപത്രിയിൽ എക്സ് റേ ഉണ്ട് സി ടി സ്കാൻ ഇല്ല സി ടി സ്കാനിൽ ഒരു പോകാൻ വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഒരു മേപ്പാടിയിൽ നിന്നു പറഞ്ഞ ഹോസ്പിലിലേക്ക് പോകണം അവിടെയെ സി ടി സ്കാനുള്ളൂ എം ആർ ഐ ഇല്ല എം ആർ ഐ പോകണമെങ്കിലും അവിടെപ്പോകണം പിന്നെ രക്തപരിശോധന മൂത്രപരിശോധന ഉണ്ട് വെറൊരിടത്ത് പോകേണ്ട ബാക്കി എക്സ് റേ രക്തപരിശോധന മൂത്രപരിശോധന ഇതു മാത്രം തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആശുപത്രികളിലുള്ളൂ ബാക്കി ഒക്കെ ദൂരസ്ഥലത്ത് പോകണം കുറേ ഒരു ഒരു മണിക്കൂർ സഞ്ചരിക്കുന്ന തരത്തിലുള്ള അടുത്തേക്ക് പോകണം ഈ ഈ രണ്ട് സ്കാനിങ്ങിനും ഈ രണ്ട് പിന്നെ ഈ രണ്ട് പരിശോധനയ്ക്കും വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോകണം